നമ്മുടെ പ്രദേശത്തെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ അവർ അയാ പ്ലസ് വൺ ആയി പ്ലസ്റ്റൂ ആയി പിന്നത് കഴിഞ്ഞ് ഡിഗ്രി എടുക്കുന്നവരുണ്ട് പിന്നെ ഐ റ്റി ഐ തൊഴിലിന് വേണ്ടീട്ട് ഐ റ്റി ഐ പോയി പഠിയ്ക്കുന്നവരുണ്ട് പിന്നെ കൂടുതലും അവർക്ക് ഈ വിദ്യാഭ്യാസത്തിനല്ല അവർ മുൻഗണന കൊടുക്കുന്നത് അവർക്ക് വേ തൊഴിലിന് വേണ്ടീട്ടാണ് ഒന്നേ സർക്കാരവർക്ക് പഠിച്ചില്ലെങ്കിലും സർക്കാർ ജോലി വേണം അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്തെങ്ങാണം പുറത്ത് പോയി ഗൾഫ് രാജ്യങ്ങൾ പോലുള്ള വിദേശ രാജ്യങ്ങളിൽ പോണം അങ്ങനെക്കെ ഉള്ളതാണ് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അപ്പം വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണങ്കിൽ ഇതക്കെ തന്നെയാണ് പിന്നെ പിന്നെ പിന്നെ എം ബി ബി എസ് എടുക്കണൊന്നൊ പഠിയ്ക്കുന്നവരുണ്ട് കലക്റ്റർ ആകണം അതിന് വേണം അങ്ങനെ ഓരൊരുത്തരും എൽ എൽ ബീയ്ക്ക് പഠിയ്ക്കന്നവരുണ്ട് ഓരൊരുത്തരും അവരുടേതായ രീതയ്ക്ക് പഠിച്ച് എന്തായാലും അവർക്കൊരു തൊഴിൽ തൊഴിലാണ് അവർക്ക് ലക്ഷ്യം അങ്ങനെ ഇന്ന് എത്രത്തോളം പഠിയ്ക്കാൻ പറ്റുമോ അത്രത്തോളം പഠിയ്ക്കുന്ന കുട്ടികളാണ് ഇന്നത്തെ തലമുറയിൽ ഉള്ളത് അവർക്കൊരു തൊഴിലാണ് അവരുടെ ലക്ഷ്യം ഒരു തൊഴിൽ കിട്ടണം എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടെയാണ് അവരിന്നത്തെ വിദ്യാഭ്യാസത്തെ മുൻ നിർത്തി കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത്